ഹലോ ആ അതേല്ലോ എവിടെനിന്നാണു വിളിക്കുന്നേ ആ ആ ആ ഹാ ആ എവിടെ നിന്നായിരുന്നു എവിടെ നിന്നായിരുന്നു വിളിക്കുന്നത് ആ കട്ടപ്പനയാ കട്ടപ്പന ആ ആ ബെൻ ഏബ്രഹാം പിന്നെ പ്രായെന്നാ ഉള്ള ആളാണ് ആ ഇരുപത്തിയഞ്ച് വയസ്സ് ആ ഓക്കെ ഓക്കെ ഇതിനു മുമ്പ് എന്തേലും ഡാൻസോ അങ്ങനെയുള്ള കാര്യങ്ങള് പ്രേക്ടീസെയ്തിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ടോ ആ ചെയ്തിട്ടുണ്ടല്ലേ ആ ഓക്കെ ആ അ അ ആ ആ ചേട്ടനെന്താണ് കഥകളിയെപ്പറ്റി അറിയേണ്ടതായിട്ടുള്ളത് എന്താണത് ചോദിച്ചോളൂ അത് പിന്നേ ഒരൂ അഞ്ചു മാസത്തെ കോഴ്സുണ്ട് പിന്നെ ഒരു ഏഴു മാസത്തെ അങ്ങനെ അങ്ങനെ ഉണ്ട് പലതും പല കോഴ്സുകളായിട്ടുണ്ട് അത് സൗകര്യമനുസരിച്ച് പിന്നെ ചെയ്യാന് പറ്റും

അതെയതെയതെയതെ അതെ അതെ അതിപ്പോള് മൂന്ന് മാസത്തേനാണെങ്കില് ഒരു ഒരു മുപ്പതിനായിരം രൂപ അഞ്ചു മാസത്തേനാണെങ്കില് ഒരമ്പത് അമ്പതിനായിരം അങ്ങനെയൊക്കെ ഉള്ള പിന്നെ സ്റ്റേ ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട് സ്റ്റേ ചെയ്തുവരുമ്പോള് ഫുഡ് അക്കമഡേഷന് ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കെല്ലാം അയിൻ്റെ എക്സ്ട്രാ ചാർജ്ജ് വരും അത് അതെല്ലാ ദിവസവുമുണ്ട് എല്ലാ ദിവസവും ഇവിടെ സ്റ്റേ ചെയ്യുന്ന പിള്ളേർക്ക് കുട്ടികൾക്ക് എല്ലാ ദിവസവും ഒരു നിശ്ചിതസമയം ഒരു മൂന്നു മണിക്കൂര് ക്ലാസ്സ് സ്ഥിരമായിട്ട് പോലെ തന്നെ നമ്മള് കൊടുക്കുന്നുണ്ട് അപ്പോള് ഇപ്പോള് നമുക്ക് ഒരു ഞാന് പറഞ്ഞില്ലേ മൂന്നു മാസം അല്ലെങ്കില് അഞ്ചു മാസം കൊണ്ടൊക്കെ ആവും പിന്നെ ഈ പിന്നെ അകലെനിന്നൊക്കെ വരുന്നയാൾക്കാർക്കാണ് കൂടുതല് സമയം വേണ്ടിവരുന്നത് എന്നു പറഞ്ഞാല് അവർക്ക് ചിലപ്പോള് എല്ലാ ദിവസവും വരാൻ പറ്റിയെന്നു വരികേല അപ്പോള് അങ്ങനെ വരുമ്പോൾ അതിനനുസരിച്ച് പിന്നെ പഠിച്ചെടുക്കാനുള്ള താമസവും വരും നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമുണ്ട് നല്ലയെല്ലാ ഫെസിലിറ്റീസുമുണ്ട് താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാമുണ്ട് ഫുഡ് അക്കമഡേഷന് സംഭവങ്ങളെല്ലാമുണ്ട് അത് എക്സ്ട്രാ ഇച്ചിരി അതിന്റേത് അനുസരിച്ചുള്ള അത് എന്താണ് എന്താണു പറയുക ഹോസ്റ്റൽ ഫീസ് പോലെ അങ്ങനെയുള്ള എമൗണ്ട് കൂട്ടി ആഡ് ചെയ്തു വരും അപ്പോള് അത് അല്ലല്ല അരങ്ങേറ്റത്തിനു നമ്മള് വേറെ പിന്നെ അതിൻ്റെ ചെലവുകള് വരും അതിന് നമുക്ക് ഇപ്പോള് കൂടുതലായി അങ്ങനെ ഒരു കാരണവശാലും കൂടുതലല്ല കാരണെമെന്നാന്നു വച്ചുകഴിഞ്ഞാല് നമ്മള് ഒത്തിരി പിള്ളേരെ എടുക്കുന്നില്ല ഒന്ന് കുറച്ച് പിള്ളേരെ വച്ച് ആണ് നമ്മളീ പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് പോകുന്നത് അപ്പോള് നമുക്ക് അത് മുതലാകണം ടീച്ചേഴ്സിന്റെ ഫീസ് ഇങ്ങനുള്ള സംഭവങ്ങളെല്ലാം ഓടണമെങ്കില് നമ്മള് ഫീസിലങ്ങന കുറയ്ക്കാറില്ല പിന്നെ അപ്പോള് നല്ല തന്നെ മികച്ച ക്ലാസ്സും നല്ല ട്രെയ്നിങ്ങുമാണ് നമ്മള് കൊടുക്കുന്നത് അരങ്ങേറ്റം വരെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ടു തന്നെയാണ് പോകുന്നത് അ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ അത് ഇല്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓഫിസിലോട്ടു വന്നാല് മതി ഓക്കെ വെൽകം ഓക്കെ ഓക്കെ ഓക്കെ